രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഴ് രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് അഞ്ച് രണ്ട് രണ്ടായിരത്തി പത്ത് മൂന്ന് ഒമ്പത് രണ്ടായിരത്തി പതിനെട്ട് ഏഴ് രണ്ട് രണ്ടായിരത്തി ഒമ്പത്